വയനാട് ജില്ലയിൽ പ്രധാനമായും ഉണ്ടായിരുന്ന ബിസ്നെസ്സ് എന്ന് പറയുന്നത് പച്ചക്കറി മത്സ്യം ഉത്പാദിപ്പിക്കുക എന്നതായിരുന്നു നിരവധി നേട്ടങ്ങൾ ഇതിലൂടെ കർഷകർ ബിസിനെസ്സ് മാർഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെ തുടർന്ന് ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുശേഷം ഇത് പൂർണ്ണമായും നിലച്ചുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കൃഷിക്കുവരുന്ന നഷ്ടവും ഇതിൻ്റെ മാർക്കറ്റിങ് ഡിമാൻഡ് കുറഞ്ഞു എന്നതാണ് സത്യം ആവശ്യക്കാരുടെ കുറവു കാരണമാണ് ബിസിനെസ്സ് തകരാനുണ്ടായ കാരണം വെല്ലുവിളികളാണ് ഇതെല്ലാം പുറത്തു നിന്നും പച്ചക്കറികൾ തുടർന്ന് വാങ്ങുക ഇതൊക്കെയാണ് ഇതിൻ്റെ വെല്ലുവിളികളായി നിലനിൽക്കുന്നത് കൂടാതെ ആവശ്യക്കാരില്ലാത്തത് പ്രധാന വെല്ലുവിളിയായി ഇതിനെ നേരിടുന്ന പ്രശ്നമാണ്